യോഗ പ്രായപരിധിയില്ലാതെ ആര്ക്കു വേണമെങ്കിലും അഭ്യസിക്കാവുന്നതാണ് ഇന്ത്യയാണ് യോഗയുടെ ഉത്ഭവ സ്ഥാനമായി കണക്കാക്കുന്നത് യോഗയുടെ പ്രാധാന്യം കണക്കിലെടുത്തുകൊണ്ട് ജൂണ് ഇരുപത്തിയൊന്ന് ലോക യോഗ ദിനമായിട്ട് ആകെ ആഘോഷിക്കുകയാണ് യോഗ അഭ്യസിക്കുന്നത് കൊണ്ട് വിവിധ ഗുണങ്ങളുണ്ട് വളരെ ചെറുപ്രായത്തില് തന്നെ യോഗ അഭ്യസിക്കുന്നത് കൊണ്ട് വിവിധ രോഗങ്ങളെ തന്നെ നമുക്ക് അകറ്റി നിര്ത്താന് കഴിയും യോഗ അഭ്യസിക്കുന്നത് വഴി കോണ്സന്ട്രേഷന് കൂടുകയും സ്ട്രെസ് കുറയ്ക്കാൻ സഹായിക്കുകയും ചെയ്യുന്നുണ്ട് വെയിറ്റ് കുറയ്ക്കാൻ വരെ നമുക്ക് യോഗ വഴി കഴിയുന്നുണ്ട് യോഗ നമുക്ക് മരുന്നില്ലാത്ത ഒരു ചികിത്സാ രീതിയായിട്ടു തന്നെ കണക്കാക്കാം യോഗ ആയുര്വേദത്തിന്റെ ഭാഗമാണ് വിവിധ തരത്തിലുള്ള യോഗ ആളുകള് ഇന്ന് അഭ്യസിക്കുന്നുണ്ട്